സാങ്കേതിക വിദ്യയിലെ പുരോഗതി എന്ന് പറഞ്ഞാലേ പ്രധാനമായിട്ടും നമ്മള് ഒരു ഫോണ് ഒരു ഫോണ് നമ്മുടെ കൈയില് ഉണ്ടെങ്കില് ഒരു ടേബിള് മേല് നിരത്തിയാൽ കൊള്ളാത്ത അത്രയും സാധനങ്ങള് നമ്മളുടെ ഫോണിലുണ്ട് കാര്യമായിട്ട് കമ്പ്യൂട്ടറ് ഫോ മറ്റേ ടോര്ച്ച് പിന്നെ എന്ത് കാര്യത്തിനും വേണേൽ നമുക്ക് വിളിക്കാം കാണാം പിന്നെ ക്യാമറ പിന്നെ നമുക്ക് വീട്ടിലെ ആവശ്യങ്ങള്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ബില് അടക്കാം ആര്ക്കെങ്കിലും പൈസ അയച്ചു കൊടുക്കണേൽ പൈസ അയച്ചു കൊടുക്കാം എന്തെങ്കിലും ഒരു യാത്ര പോകുകയാണെങ്കില് ടിക്കറ്റ് എടുക്കണം എന്നുണ്ടെങ്കില് വിളിച്ചു പറഞ്ഞാല് ഓണ്ലൈനില് ടിക്കറ്റ് എടുക്കാം ഇപ്പം ഒരു സിനിമക്ക് പോകണം എന്ന് വെച്ചെങ്കില് ഓണ്ലൈനില് ടിക്കറ്റ് ബുക്കിങ്ങ് ചെയ്യാം പിന്നേ കുട്ടികള്ക്ക് പഠന സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒന്നും ഇല്ലെങ്കില് ഒരു യൂട്യൂബ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് ആവശ്യമുള്ള സംഗതികളൊക്കെ അതില് നെറ്റില് നമുക്ക് കിട്ടും പിന്നേ ഒരു വിധപ്പെട്ട എല്ലാ സംഗതികള്ക്കും നമുക്ക് ഫോണ് തന്നെ മതി റേഡിയോ ടി വി മറ്റേ ഇതിലെല്ലാ പരിപാടികളും ഫോണില് കിട്ടുന്നുണ്ട്